മലയാളത്തിലെ പ്രധാനപ്പെട്ട പഴഞ്ചൊല്ലുകൾ ആണ് മടിയന്മാർ മല ചുമക്കട്ടെ തേങ്ങ വറുത്തരച്ചാലും താളല്ലേ കറി ചുട്ടയിലെ ശീലം ചുടല വരെ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് ഉള്ള പ്രയോഗത്തിന്റെ അല്ലെങ്കിൽ പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ എന്ത് പഠിച്ചു അതായിരിക്കും വലിയവരെ അത് എത്ര നമ്മൾ മുതിർന്നാലും ആ ശീലം നമ്മളെ നമ്മളെ വിട്ടു പോകില്ല അതായത് ഇന്ന് ചെറുപത്തിൽ ഒരു ചെറിയ കുട്ടീനെ നമ്മള് അല്ലെങ്കിൽ മാതാപിതാക്കളോ അല്ലെങ്കിൽ ആര് ഗുരുക്കന്മാരോ ആരായാലും നമ്മൾ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ് മുതിർന്നവരെ കാണുമ്പോൾ ബഹുമാനിക്കണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യണം എന്ന് നമ്മൾ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടി അത് വിടില്ല അതായത് ചെറുപ്പത്തിൽ എന്തു പഠിക്കുന്നുവോ അതായിരിക്കും ആ കുട്ടിയുടെ അവസാനം വരെ ഉണ്ടാവുക ചെറുപ്രായത്തിൽ എന്തു പഠിച്ചു അതാ കുട്ടിയുടെ ജീവിത അവസാനം വരെ തന്നെ ഉണ്ടായിരിക്കും അതിന് കഴിഞ്ഞുള്ള പഠിപ്പും വിദ്യ ആയിട്ട് അവരിക്ക് കിട്ടുള്ളൂ അത് അവരിക്ക് നോളജ് ആയിട്ടേ കിട്ടുള്ളൂ പക്ഷേ ചെറിയ കുട്ടി ചെറിയ കുട്ടി ആകുമ്പോൾ പഠിക്കുന്ന എന്ത് ശീലവും അത് അവരുടെ അവസാനം വരെ അവരിലുണ്ടായിരിക്കും അതിനുവേണ്ടിയാണ് ഇനി ഇപ്പോൾ നമ്മൾ ഒരു കുട്ടി ചീത്തത് കാണിച്ചാലും നമ്മള് പറയും ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് അതിന് പറയുക